ഞാൻ മലയാളം പഠിച്ചത് എൻ്റെ ജീവിത ശൈലീക്കൂടാണ് കാരണം ഞാൻ ജനിച്ചത് കേരളത്തിലാണല്ലോ നമ്മുടെ മാതൃഭാഷ മലയാളന്തന്നാണ് നമ്മള് ജന്മനാ തൊട്ട് അമ്മ അമ്മ പഴ അമ്മ എന്ന് വിളിക്കുന്നതുതൊട്ട് മലയാളത്തിൽത്തന്നെ നമ്മള് പഠിച്ച് നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളില് നമ്മള് ഒത്തിരി മലയാളങ്ങള് മലയാളം അടിസ്ഥാന പാഠാവലിയും കേരള പാഠാവലിയും തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഓരോ പാഠപുസ്തകങ്ങളില് നമ്മളേറെ ഒത്തിരിയേറെ പഠിച്ചിട്ടുണ്ട് മലയാളം പഠിച്ചത് നമ്മൾ നമ്മുടെ ഗുരുക്കന്മാര് നമ്മളേ പഠിപ്പിച്ചതാണ് മലയാളം വായിക്കാനിപ്പോഴത്തെ കാലത്തൊക്കെ കുട്ടികളേറ്റവും പ്രയാസപ്പെടുന്നൊരു സംഭവമാണ് നമ്മള് മലയാളിയായിരുന്നിട്ടുപോലും മലയാളം വായിക്കാനും എഴുതാനുമറിയാത്ത കുറേപ്പേര് അതില്നിന്നും എൻ്റെതില് എനിക്ക് മലയാളം വായിക്കാനും സംസാരിക്കാനുമൊത്തിരി അറിയാം എനിക്ക് ഞാൻ ഓരോ ചില സന്ദര്ഭങ്ങളില് സംസാരിക്കാറൊക്കെയുണ്ട് നല്ലവണ്ണം അപ്പ അതിൻ്റെ ഇടയിലപ്പോള് മലയാളം നല്ലതുപോലെയൊക്കെ അറിയാം മലയാള ഭാഷ പഠിച്ചതുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നതു നമുക്ക് കുറേ സാഹിത്യമ്മാരും മലയാളികള് തന്നാണ് അതൊക്കെ നമുക്കേറെ അഭിമാനിക്കാനായിട്ട് കഴിയുന്നുണ്ട് നമ്മളോരു മലയാളിയാണെന്നു പറയുന്നതി നമ്മളേറെ ഇതുണ്ട് മലയാള ഭാഷ പഠിച്ചതു കൊണ്ട് ഗുണമെന്നു പറയാമെങ്കില് നമുക്കോരോ കാര്യങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും എന്തിനേറെ നമ്മളിപ്പോള് ഏത് സ്ഥലത്തു പോയാലും ഏത് കോണിപ്പോയാലും ഒരു മലയാളിയുണ്ടെന്ന് പറയുന്നത് ഏറെ സത്യമായിട്ടുള്ള കാര്യമല്ലപ്പോള് ഈ മലയാളംകൊണ്ട് നമുക്ക് ലോകത്തെവിടെപ്പോയാലും പിടിച്ചു നില്ക്കാന് പറ്റും അതുപോലത്തേങ്കൂടൊരിതുണ്ട് നമുക്ക് ഏത് മലയാളങ്കൊണ്ടും നമുക്ക് എവിടേമ്പോവാം മലയാളത്തിൽ നമ്മൾ ഏറിയ പങ്കും വഹിക്കുന്നുണ്ട്